എനിക്ക് കൂടുതൽ എഴുതാൻ ഇഷ്ടം എനിക്കിഷ്ടമാണ് കേട്ടോ എഴുതുന്നത് എഴുതുന്നത് ഇഷ്ടമാണ് കവിതകള് എഴുതുന്നത് ഇഷ്ടമാണ് പ്രകൃതിയെക്കുറിച്ച് എഴുതുന്നത് ഇഷ്ടമാണ് അമ്മയെക്കുറിച്ച് എഴുതുന്നത് ഇഷ്ടമാണ് പ്രണയ ലേഖനങ്ങൾ എഴുതുന്നത് ഇഷ്ടമാണ് പ്രണയ കഥകൾ എഴുതുന്നത് ഇഷ്ടമാണ് എഴുത്ത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും എഴുതുന്നത് ഇഷ്ടമാണ് നമ്മൾക്കുണ്ടല്ലോ ഒരു സാങ്കല്പിക ലോകം ഉണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു സാങ്കല്പിക ലോകം ഉണ്ട് അത് നമ്മള് ചിന്തിച്ചു കൂട്ടുന്ന ഒരു എന്താണ് പറയുക നമ്മള് നിറം നൽകുന്ന ഒരു ജീവിതവും പാശ്ചാത്തലവുമൊക്കെ ആ സാങ്കല്പിക ലോകത്തുണ്ട് അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചെടുത്തോളം ആരോടും പറയാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്കതെഴുതാം നമ്മുടെ ലോകത്തില് നമ്മടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മക്ക് എഴുതി നിശ്ചയിക്കാം പല സമൂഹത്തോട് പറയാവുന്ന കുറേ നല്ല കാര്യങ്ങൾ ഉണ്ട് കേട്ടോ എഴുത്തിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന കുറേ സമകാലിക കാര്യങ്ങൾ ഉണ്ട് പക്ഷെ എഴുത്തിനെക്കൊണ്ടുള്ള എൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ആളാണ് അപ്പോൾ എന്റേതായ സ്വപ്നങ്ങള് എൻ്റെ സാങ്കല്പിക ലോകം എന്റേത് അത് ഞാനെന്താ പറയുക എനിക്കത് എഴുതി എഴുതിയത് കഥപോലെയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങള് ഞാനങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു കഥ പോലെയെത്തിക്കുക നമ്മുടേതായ ലൈഫ് നമ്മളെങ്ങനെയാണ് നമ്മള് സിനിമയൊക്കെ കാണുമല്ലോ ആ സിനിമ ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഉദ്ദേശം ഉണ്ടാകുമല്ലോ അതേപോലെ നമ്മുടെ സ്വപ്നങ്ങള് ഇങ്ങനെ ആയിരിക്കണം നമുക്കൊരു ചിന്തയുണ്ട് അതേപോലെ സമൂഹത്തോട് പറയാനും ഒക്കെ നമുക്ക് എഴുത്തിലൂടെയും ഓരോ മുദ്രാവാക്യം എഴുതുന്നതുകൊണ്ട് നമുക്ക് അവരിലേക്ക് നൽകുന്ന ഒരിതാണ് ഒരു ചൂണ്ട് വിരലാണ് നമ്മള് അങ്ങനെ അങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു